ഹലോ കേൾക്കാം കേൾക്കാം പറയൂ ആ ഓക്കെ ഓക്കെ അതെ അതെ അതെ ആ ആ ഉം ഞാൻ ഗൈഡ് ആണ്

കേ കേരളത്തിൽ എങ്ങനത്തെ സ്ഥലം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് അത് സീനറി ആണോ അല്ല അമ്പലം ആണോ അല്ല എങ്ങനത്തെ ഓവർഓൾ ആണല്ലേ ഓക്കെ ഓക്കെ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ഏതാണ് പൊതുവേ പത്ത് ആൾക്കാരുണ്ട് ഓക്കെ ഓക്കെ ഓക്കെ ഒരു മിനി ബസ് മതിയാവും തോന്നുന്നു നിങ്ങൾക്കിപ്പോൾ ഇത് എവിടേക്കാണ് പോവാൻ കേരളത്തിലാണോ അല്ല ഔട്ട് ഓഫ് കേരള ആണോ എങ്ങനെയാണ് പോവാൻ താൽപ്പര്യം

ആ സീനറി സീനറി പിന്നെ അമ്പലങ്ങളൊക്കെ വേണം ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ അമ്പലങ്ങളല്ലേ നമുക്ക് തിരുവനന്തപുരം ആ സൈഡ് പോയാൽ ശബരിമല ഉണ്ട് അമ്പലം അവിടെ പോവാൻ പറ്റും പിന്നെ നമ്മളെ ഇവിടെ വടക്ക് ശബരിമല എന്ന് പറഞ്ഞ് ഉബ്രങ്ങളൊണ്ട് ആ പിന്നെ മധൂറുണ്ട് നമ്മുടെ ഇവിടെത്തന്നെ കാസർഗോഡ് തന്നെ ആണ് ഓക്കെ അതെ ആ പിന്നെ പത്ത് പേർക്കല്ലേ ഞാൻ പത്ത് പേർക്ക് ഒരു പേർക്ക് രണ്ടായിരത്തഞ്ഞൂറ് വെച്ചിട്ടാണ് ചാർജ് വരുന്നത് ഡെയിലി ഒരു ദിവസത്തിൽ ഏ ആ പെർ ഡേ രണ്ടായിരത്തഞ്ഞൂറ് അതിൽ ഫുഡ് ഒ ഒക്കെ പെടും അക്കോമഡേഷൻ അതിൽ അക്കോമഡേഷൻ ആ അതിൽ തന്നെ പെടും ആ പെർ ഡേ ഫീസിൽ ആ അത്യാവശ്യം നമ്മൾ കസ്റ്റമറിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഇത് വയ്ക്കാറ് ഏകദേശം നിങ്ങൾക്ക് എത്ര ദിവസം വേണം അത്ര ദിവസം ഉണ്ടാവും പെർ ഡേ ചാർജ് രണ്ടായിരത്തിയഞ്ഞൂറാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് ആ നിങ്ങൾ പത്ത് പേരല്ലേ പറഞ്ഞത്

ആ അതൊക്കെ നമ്മൾ ആ നോക്കിയിട്ട് നമ്മൾ ആ ഡേറ്റ് ഫിക്സ് ചെയ്യാം അതിൻ്റെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നമ്മളെ ഇവിടെ ഇൻസ്റ്റിറ്റ്റ്യുഷനിൽ വന്നാൽ നമുക്ക് അത് സംസാരിച്ച് നമുക്ക് ശരിയാക്കി എടുക്കാം ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ ശരി ഉം ശരി